പക്ഷി നിരീക്ഷണത്തിൽ നമുക്ക് ഒരുപാട് കിളികൾ ഇവിടെ വരാറുണ്ട് അതിനകത്ത് കൂടുതലായി കണ്ടു ഞാൻ കണ്ടിരിക്കുന്നത് വണ്ണാത്തി കിളിയെയും അതേപോലെ വണ്ണാത്തിക്കിളി പണ്ട് കാലത്തായിരുന്നു ഇപ്പോൾ വരവ് കുറവാണ് കറുപ്പും വെളുപ്പുമായിട്ടുള്ള വണ്ണാത്തി കിളികൾ ആദ്യം കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിനെ കാണാറേ ഇല്ല അതിന് എന്ത് പറ്റി എന്ന് അറിയില്ല അതേപോലെ പൂത്താഗിരി എന്ന് പറയുന്ന കിളികൾ ആണ് നിറയെ ഇവിടെ ഉള്ളത് അതിൻ്റെ സൗണ്ട് ആണെങ്കിൽ എന്ന ഭയങ്കര കെല കെലാന്നുള്ള സൗണ്ടിൽ ഇവർ രാവിലെയും പകൽ സമയത്തും എല്ലാം ഇവിടെ നിറയെ വരാറുണ്ട് അതാണ് കൂടുതലായി കാണപ്പെടുന്നത് പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരുമൊത്ത് കുറച്ചു സമയം ചിലവഴിക്കാനായിട്ട് ഞങ്ങൾ കോടനാട് പക്ഷി സങ്കേതം പക്ഷി സങ്കേതമല്ല അവിടെ കോടനാട് അഭയാരണ്യം എന്ന് പറഞ്ഞ ഒരു ഫോറെസ്റ്റ് ഏരിയയിൽ പോയി അവിടെ ഇതേ പോലെ ചിത്രശലഭങ്ങളും പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അവിടെ വച്ച് കണ്ട ഒരു പച്ച കളർ തത്ത അല്ല പക്ഷെ അ ഒരു തൂവലിലൊക്കെ ഒരു പച്ച നിറത്തോടു കൂടിയ ഒരു പക്ഷിയെ കണ്ടു അധികം വലുപ്പമൊന്നുമില്ല അതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുണ്ടായിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൽ ജോലി ചെയ്യുന്നതാണ് അത് അയാൾ പറഞ്ഞത് അത് മരതക പ്രാവണെന്നാണ് പിന്നീട് ഞാൻ അതിനെ ഫോട്ടോ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ശരിയാണ് മരതക പ്രാവാണ് പച്ച കളർ ആയിട്ട് പ്രാവിൻ്റെ അത്രയും വലുപ്പം ഒന്നുമില്ല പക്ഷെ അത് അത് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടപ്പെട്ട ഒരു അപൂർവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു പ്രാവിശ്യം മാത്രമേ കണ്ടിട്ടുള്ളൂ